ഹലോ ഡോക്റ്റർ അല്ലേ സൈക്കാട്രിക്ക് സ്പെഷ്യലിസ്റ്റ് അല്ലേ ആ മാമിൻ്റെ പേര് എങ്ങനെയാ

മാം എൻ്റെ പേര് മീനു എന്നാണ് ഞാനൊരു കോളേജ് സ്റ്റുഡൻറ് ആണ് അപ്പോൾ എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വല്ലാത്തൊരു ഒറ്റപ്പെടലും ഏകദേശം ഒരു ഡിപ്രെഷൻ പോലെയൊക്കെ ഇങ്ങനെ തോന്നുവാണ് അപ്പം എൻ്റെ ദിവസവും ഉള്ള കാര്യങ്ങളക്കെ അത് ബാധിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ എൻ്റെ ഒരു ഫ്രെണ്ട് ആണ് ഇങ്ങനെ എനിക്ക് സജെസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഒരു സൈക്കാട്രിക്കിനെ കൺസൾട്ട് ചെയ്താൽ നല്ലതായിരിക്കും നമ്മളെ ഡെയ്ലി ആക്ടിവിറ്റീസിനെ ബാധിക്കുന്ന സ്ഥിതിക്ക് അത് ട്രീറ്റ്മെൻറ് എടുത്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ മാമിനെ അപ്പ്രോച്ച് ചെയ്തത് മ ഓക്കെ മാം അപ്പോൾ മാമിനോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ ഏതായാലും മാമിനെ നേരിട്ട് വന്ന് മാമിനെ കൺസൾട്ടേഷൻ വാങ്ങിച്ചോളാം താങ്ക് യു മാം